ഉണ്ട് ഹൈ സ്കൂൾ ഹയർ സെക്കൻ്ററി എല്ലാം ഉണ്ട് അപ്പം ആ ഒരു സ്കൂളിനെ സ്കൂളിൽ ആ സ്കൂളിലാണ് ഏറ്റവും നല്ലൊരു സ്കൂളാണ് അവിടെ പഠിക്കാനായിട്ട് എന്താ പറയുക അവിടെ പഠിക്കാനായിട്ട് നല്ലൊരു ഇഷ്ട നല്ല രീതിയിലുള്ള പഠിപ്പീരും മറ്റുമാണ് എക്സാം എക്സാം ഒക്കെ ആകാറാകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് എല്ലാ രീതിയിൽ എല്ലാ തരത്തിൽ അവർ പഠിപ്പിച്ച് കംപ്ലീറ്റാക്കിയിരിക്കും അവരുടെ പോഷണിൽ പോഷൻസെല്ലാം കംപ്ലീറ്റാക്കിയിരിക്കും അപ്പം അപ്പം സ്കൂളെന്നു പറയുമ്പം ടീച്ചേഴ്സാണെ പോലുഷ് നല്ല സ്നേഹത്തിലൊക്കെയാണ് വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് അതു കൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്ക് ആ സ്കൂളുകളിൽ പഠിക്കാനായിട്ട് ഇഷ്ടമുണ്ട് അതു കൊണ്ടു തന്നെ പഠിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ പിന്നെ പ്രത്യേകമെന്നു പറയുമ്പോൾ ഗവൺമെൻറ്റ് കോളേജ് അങ്ങനെയൊക്കെയുള്ള കോളേജ് സ്കു ഗവൺമെൻറ്റ് സ്കൂളുകൾ സ്കൂളുകളിലാണെ പോലും ടീച്ചേഴ്സാണേപ്പോലും ഭയങ്കരമായിട്ട് സ്നേഹത്തിലും നല്ലൊരു കരുതലുമാണ് ഏറ്റവും കൂടുതലും അവിടെ സ് അവരെ സ്നേഹിച്ച് പഠിപ്പിക്കുകയെന്നു മാത്രമേ പറയാനുള്ളൂ കാരണം അവരവിടെ പഠിപ്പിക്കുന്ന രീതിയെന്നു പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ പിള്ളേരുമായിട്ട് വിദ്യ വിദ്യാർത്ഥികളോടു കൂടിച്ചേർന്ന് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് വിദ്യാർത്ഥികളെ ചേർത്തു പിടിച്ച് പഠിപ്പിക്കുന്നൊരു രീതിയാണ് ഗവൺമെൻറ്റ് സ്കൂളിലും ഇപ്പം ഞാൻ പറഞ്ഞ സ്കൂളിലും ഉള്ളത് പല തവണയാണെങ്കിൽ പോലും ഞാനല്ല ഞങ്ങൾക്ക് അനുഭവങ്ങളിലൂടെ ഞങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾക്കാണെങ്കിൽപ്പോലും ഞങ്ങൾ ടീച്ചേഴ്സാണെങ്കിൽപ്പോലും ഞങ്ങളോടു വന്ന് ഞങ്ങളുടെ ഒപ്പമിരുന്ന് ഞങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതു പറഞ്ഞു തന്ന് ഞങ്ങളെ മനസ്സിലാക്കി പഠിപ്പിച്ച് ഞങ്ങളുടെ എന്തു കാര്യത്തിനും കൂടി നിൽക്കുന്നൊരു ടീച്ചർ ടീച്ചേഴ്സ് ആയിരുന്നു നമ്മുടെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് ആ സ്കൂളിൽ നല്ല രീതിയിൽ ഉച്ചഭക്ഷണം കിട്ടും ഭക്ഷണവും നല്ലതാണ് അപ്പം അവിടെയുള്ള ആയമാർക്ക് പോലും നമ്മളോടു സ്നേഹമുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തും ടീച്ചേഴ്സിനോടുള്ള സ്നേഹവും ബഹുമാനത്തിൻ്റെയും പുറത്തും നമ്മൾ പഠിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു അപ്പം ആ രീതിയിലാണ് ആ പഠിപ്പീരും കാര്യങ്ങളും കാരണം അപ്പോൾ വിദ്യാർത്ഥികളോടിണങ്ങിച്ചേർന്ന് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിന്ന് നിൽക്കുകയാണെങ്കിൽ വിദ്യ പല പഠിക്കില്ല പഠിക്കില്ല എന്നു നമ്മൾ വിശ്വസിക്കുന്നവർ പോലും പഠിച്ച് നല്ല മാർക്കോടു കൂടി പാസാകാനായിട്ട് പാസാകുന്നൊരു രീതി വരെ ഉണ്ടായിരുന്നു എല്ലാ തവണ എക്സാമൊക്കെ ആകുമ്പോഴത്തേക്ക് എൽ ടീച്ചേഴ്സെല്ലാം വന്ന് അവരുടെ പോഷൻസൊക്കെ തീർത്ത് അവർക്ക് മനസ്സിലാകാത്ത പോഷൻസ് പിന്നെയും പിന്നെയും പിന്നെയും പറഞ്ഞു തന്നും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നല്ല രീതിയിലൂടെ പഠിപ്പീരും നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത് ഗവൺമെൻറ്റ് സ്കൂളിൽ പിന്നെ ഗവൺമെൻറ്റ് സ്കൂളായാൽപ്പോലും കായികമായിട്ടും നല്ല രീതിയിലുള്ള ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കൂളുകളിളുണ്ടായിരുന്നു അപ്പം വിദ്യാർത്ഥികൾക്ക് ലോട് ഇണങ്ങിച്ചേർന്ന് അവരുടെ കൂടെ അവരിലൊരാളായി തന്നെ നിന്നു കൊണ്ട് പഠിപ്പിക്കുന്നൊരു ടീച്ചർമാർ ടീച്ചേഴ്സായിരുന്നു ടീച്ചേഴ്സ് സാറുമാരുമായിരുന്നു ഞാൻ ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിലുള്ള പഠിപ്പീരും നല്ല രീതിയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് പഠിപ്പിക്കുന്നത് പക്കയായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാകുമായിരുന്നു നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് അവർ പറഞ്ഞു തരികയാണ് ചെയ്യുമായിരുന്നു നമുക്ക് ഡൗട്ടുണ്ടെന്നു വെച്ചാൽ അപ്പം തന്നെ നമുക്ക് അവർക്ക് അവരോട് പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാക്കി അവരോട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചത് മനസ്സിലാക്കി അവർ പറഞ്ഞു തന്ന് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അവർ പറയ് തരും പറഞ്ഞു തരും എന്നൊരുറപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു തരുന്നൊരു സ്കൂളാണത് ഓക്കെ